ഞാൻ എൻ്റെ നാട്ടുമ്പുറത്ത് ഞാൻ തന്നെ ആരംഭിച്ച് വിജയം വരിച്ച ഒരു സംരംഭമാണ് എൻ്റെ പച്ചക്കറിക്കൃഷി ഞാൻ വളരെ കൗതുകത്തോട് കൂടിയാണ് ഞാനതിനെ നോക്കിക്കാണുന്നത് കാര്യം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു കൊറോണ സമയത്ത് ഞാനെൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസ്സിൻ്റെ മുകളിൽ ഒരു കുറച്ച് പാവലും അതുപോലെ തന്നെ വള്ളിപ്പയറും കുറച്ച് മുളകും ഒക്കെ ഞാനൊന്ന് കൃഷി ചെയ്തു കൃഷി ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം എന്ന് വേണം പറയാൻ വളരെ നല്ല രീതിയിലാണ് വിള എനിക്കതിൽ നിന്ന് കിട്ടി നല്ല ജൈവ പച്ചക്കറിയായിരുന്നു ഇപ്പോൾ ഒരു വിത്ത് എനിക്കൊരാൾ തന്നതാണ് ഇപ്പോഴത് വച്ച് നട്ടു മുളപ്പിച്ചതാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് അതിൽ നിന്നെനിക്ക് വിളവെനിക്ക് കിട്ടി അപ്പം ഞാനെന്തൊക്കെ ആയാലും ചുമ്മാ ഒന്ന് അതിൻ്റെ വിലയൊക്കെ ഒന്ന് അറിയണോ ജൈവപച്ചക്കറിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് കടയിൽ കൊണ്ടുപോയി വിറ്റ് നോക്കാൻ വേണ്ടി വിറ്റ് വിറ്റ് നോക്കുകയും അതുപോലെ തന്നെ ആ കടയിൽ നിന്ന് ആൾക്കാർ വന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്തു അപ്പം അതിൽ നിന്നെനിക്ക് കിട്ടിയ ലാഭമെന്ന് വച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായതായിരുന്നു പിന്നെ ഞാനെന്ന് വിചാരിച്ചു ഇത് കുറച്ചു കൂടിയൊക്കെ ഒന്ന് വിപുലീകരിച്ചതിന് ശേഷം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ആൾക്കാരെ തേടിപ്പിടിച്ച് ആൾക്കാർക്ക് കൊണ്ടുകൊടുത്ത് അതിൽനിന്നുകൂടി പൈസ നമ്മൾക്ക് എടുത്തുകൂടെ എന്നുള്ള കാര്യം ഒരു ചിന്ത എനിക്ക് മനസ്സിൽ തോന്നി അങ്ങനെ കുറച്ചും കൂടി വിപുലമായിട്ട് നല്ല രീതിയിൽ എൻ്റെ എൻ്റെ ടെറസ്സിന് മുകളിൽ നെറ്റൊക്കെയൊന്ന് വലിച്ച് കെട്ടി നല്ല രീതിയിലൊരു പച്ചക്കറിത്തോട്ടം എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കി അതിൽ നിന്നും എനിക്ക് അതിൽ നിന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം ഒരു വിളവ് രണ്ടാമത്തെ എൻ്റെ ആ ഒരു കൃഷിക്കും കിട്ടി നല്ല രീതിയിൽ പാവലും അതുപോലെ തന്നെ പയറും മുളകും ഒക്കെ നല്ല രീതിയിൽ എനിക്ക് കായ് തന്നു അങ്ങനെ അതെല്ലാം പറിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ച്ചയും പിന്നെ ഇത് വിളവെടുക്കേണ്ട സമയം ആയപ്പോൾ എല്ലാ ഞായറാഴ്ച്ചയും അതിൽ നിന്നും എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു രണ്ട് കിലോ മൂന്ന് കിലോ പാവലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങി പിന്നെ വാട്സ്ആപ്പിലൊരു ഗ്രൂപ്പായിട്ട് തുടങ്ങി ജൈവ പച്ചക്കറിയെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് തുടങ്ങി അപ്പം അതിൽ നിന്ന് കുറച്ച് ഇവിടെ നാട്ടുമ്പുറത്തുള്ള കുറച്ച് മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്നെനിക്ക് കിട്ടി അപ്പോൾ അവരെ എല്ലാത്തിനേയും ഓരോരോ മെസ്സേജുകൾ ഞാൻ വാട്സ്ആപ്പിൽ ഇട്ടു കൊടുക്കുകയായിരുന്നു ഇന്ന ദിവസം പച്ചക്കറിയുണ്ട് ഇന്ന ദിവസം പാവലുണ്ട് കോവക്കെ ഉണ്ടായിരുന്നു മുളകുണ്ട് വേണോ വേണ്ടവർ പറയുകയെന്നുള്ള കാര്യം പറയുക അവരെതന്നെ വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യുകയും അവരുടെ വീട്ടിൽ ഞാൻ കൊണ്ടെത്തിക്കുകയും അതിൽ നിന്നും അവരെനിക്ക് എപ്പോഴും അവിടെ വച്ച് പൈസ തരികയും ചെയ്യുമായിരുന്നു അപ്പോൾ വളരെ നല്ല രീതിയിൽ ആ ഒരു സംരംഭം മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെപ്പിന്നെ ഇപ്പം ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയായി കാര്യം കാട്ടിൽ നിന്നും കുരങ്ങുകൾ ഇപ്പോൾ വീടിൻ്റെ ടെറസ്സിലേക്ക് കയറി വരാറുണ്ടായി അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കിയതാണ് പക്ഷേ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയാണ് കാര്യം കുരങ്ങുകളുടെ ഈ ഒരാക്രമം കാരണം നമുക്ക് ഇനി ഒന്നും ടെറസ്സിലൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല